ചെടികൾ വീട്ടിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോവുന്ന ദിവസം വേറെ ഏതെങ്കിലും വീട്ടിൽ നിൽക്കാൻ പോവുമ്പോൾ നല്ല നല്ല പണിയാണ് കാരണം അതിന് നനക്കാൻ കഴിയില്ല അത് ഉണങ്ങിപ്പോവും പിന്നേ പിന്നെ വെള്ളം നനക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാണ്ട് തിരിച്ചുവരുമ്പോത്തിന് അതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും പിന്നെ ഞാൻ കുറേ ദിവസത്തേക്ക് വീട്ടിലേക്കോ എവിടേക്കെങ്കിലും പോവുമ്പോൾ ഇവിടെ അടുത്തുള്ള ആരോടെങ്കിലും അന്വേഷിച്ച് എടുത്ത് വരും അങ്ങനെയാണ് ഇതുവരെ ഒക്കെ ചെയ്തത് അങ്ങനെത്തെ അങ്ങനെത്തെ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ എല്ലാം ഇതായിട്ട് തന്നെ അല്ലെങ്കിൽ ആകെ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും പിന്നെ ഞാൻ അധികം ദിവസങ്ങളൊന്നും വേറെ വീട്ടിലൊന്നും പോയി നിൽക്കലില്ല അത് കൊണ്ട് അങ്ങനെത്തെയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പോവുകയാണെങ്കിൽ വേറെ ആരോടെങ്കിലും ഇപ്പം ചെടിയൊന്ന് നനക്കാൻ പറയും